ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളം വിനോദ സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇവിടുത്തെ മാർക്കറ്റുകളെ അല്ലെങ്കിൽ ഷോപ്പിങ് കേന്ദ്രങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം പറയേണ്ടത് കോഴിക്കോട് മിഠായിത്തെരുവിനെ കുറിച്ച് തന്നെയാണ് ചരിത്രമുറങ്ങികിടക്കുന്ന ഈ സ്ഥലം ഇന്നും അതേ പ്രാധാന്യത്തോടെ നിലനിർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ മട്ടാഞ്ചേരി മാർക്കറ്റ് മട്ടാഞ്ചേരി മാർക്കറ്റ് ആണെങ്കിലും ഒരുപാട് നമുക്ക് ആ ഒരു പഴയ കാലത്തേക്ക് നമ്മളെ കൂട്ടികൊണ്ടുപോകുന്ന ഒരു സ്ഥലം തന്നെയാണ് മട്ടാഞ്ചേരി മാർക്കറ്റും പിന്നെ നൂതനമായ കാലഘട്ടത്തിലെ സാധ്യതകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ലുലു മാള് ഫോറം മാള് ലുലു മാള് കൊച്ചിയിൽ പാലക്കാട് തിരുവനന്തപുരത്ത് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കോഴിക്കോട് വെച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ ഓരോ സ്ഥലത്തും ഇന്നും ഇന്ന് മോളുകൾ നമുക്ക് ലഭ്യമാണ്